ഇപ്പോൾ നോവലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റടിക്ക് ഇരുന്ന് വായിക്കാറില്ല ഇപ്പം കുറച്ച് കുറച്ച് ഒരു അര മണിക്കൂറൊക്കെ ടൈമിനാണ് നമ്മൾ വായിക്കാറ് കാരണം കുറച്ച് കുറച്ച് സമയമെടുത്ത് ഇപ്പോൾ ഒരുപാട് നേരം ഒരു സാധനത്തിനെ തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കുമ്പോൾ കണ്ണിന് ചെറിയ് പ്രശ്നം വരും അപ്പം കണ്ണ് നിറയും അങ്ങനൊയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഒരു അര മണിക്കൂർ എന്താ പറയുക ഒരു അഞ്ചാറ് പേജൊക്കെ വായിക്കാനേ പറ്റുള്ളൂ അപ്പം ഒരു നൂറ്റമ്പത് പേജുള്ള ബുക്കൊക്കെയാണെങ്കിൽ ഒരു പത്ത് പേജൊക്കെ ഒരു ദിവസം വായിക്കാം അത്ര കഷ്ടി കൂട്ടുള്ളൂ ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ലക്ഷ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും നോവലിൻ്റെ എന്താ പറയുക വിവരണമൊക്കെ എഴുതണമെങ്കിൽ ആണെങ്കിൽ നമ്മളിപ്പം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും ആ ബുക്ക് വായിച്ച് തീർക്കും കാരണം രാവിലും പകലും എന്താ പറയുക നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് നമ്മളതിന് വേണ്ടിയിട്ട് ചിലവഴിക്കും അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് അതി ഇപ്പം വായിച്ചിട്ട് വലിയ ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്ക് അറി പയ്യേന്ന് ഇപ്പം എന്താ പറയുക പറ്റുന്ന പോലെ ഒന്ന് രണ്ട് പേജ് ഒര് ദിവസമൊക്കെ വെച്ച് വായിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് കാരണം നമുക്കെല്ലാറ്റിനും സമയം വേണം എന്താ പറയുക പഠിക്കാനും വേണം അതുപോലെ തന്നെ ബുക്ക് വായിക്കാനും വേണം ഇപ്പം നോർമൽ നോട്ടൊക്കെ വായിക്കാനുണ്ടാകും അപ്പം അതും വായിക്കണം അപ്പം പിന്നെ നമുക്കത് നമ്മുടെ പുറത്ത പോകണം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനൊക്കെ സമയമില്ലേ ആ സമയങ്ങളിൽ ഒഴിവ് ബാക്കി നമുക്ക് എന്തൊക്കെ ഫ്രീ ടൈമ് കിട്ടുന്നോ നമ്മൾ ടി വിയൊക്കെ കാണുന്ന ആ സമയമെല്ലാം കുറച്ച് ആ വായിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളു അപ്പം വെട്ടത്തിലിരുന്നാൽ വായിക്കില്ല അപ്പം എന്താ പറയുക ലൈറ്റൊക്കെ ഇടാൻ പറ്റുന്ന സമയങ്ങളിൽ അങ്ങനെ ഇരുന്ന് വായിക്കുള്ളൂ അല്ലെങ്കിൽ പുറത്തൊക്കെ വായു വെള്ളം കൊണ്ട് അങ്ങനെയൊക്കെ അപ്പം ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാക്സിമം വായിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്